എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഓർമ്മകൾ സമ്മാനിച്ചതെന്ന് വെച്ചാൽ പത്താം ക്ലാസ് തന്നെയാണ് കാരണം അഞ്ചാം ക്ലാസ് തൊട്ട് ഞങ്ങളൊരുമിച്ച് എല്ലാവരും നല്ല ഫ്രൺ അത്രയും നല്ല കൂട്ടുകാരുണ്ടായിരുന്നു അഞ്ച് തൊട്ട് പത്ത് വരെ ഒരുമിച്ച് എല്ലാവരും ഒരേ നല്ല കമ്പനി ആയിട്ടുള്ള ആളുകളായിരുന്നു ഒരുപാട് ഓർമ്മകളുണ്ട് കാരണം നൈറ്റ് ക്ലാസ് ആണെങ്കിലും ഞങ്ങളുടെ എസ് എസ് എൽ സി എക്സാം എല്ലാം കൊണ്ടും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു കാലഘട്ടമെന്ന് പറഞ്ഞാൽ അത് പ്ലസ്റ്റ് പത്ത് തന്നെയാണ് കാരണം ഒരുപാട് ഞങ്ങൾ ഒരു ക് സ്പോർട്ട്സിലൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനൊക്കെ പോവുമായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി കൂടുതൽ നമ്മൾ ക്ലോസ് ആവാൻ പറ്റി പത്താം ക്ലാസ് ശരിക്കും മെമ്മറബിൾ തന്നെ കാരണം ഇനി ഒരു ലൈഫ് ഏറ്റവും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പത്താം ക്ലാസ് ആണ് കാരണം അവരെല്ലാവരും ഇപ്പം അ അല്ല എല്ലാവരും പല വഴിക്കാണ് എന്നാലും തന്നെ എല്ലാവരുമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് പോവുന്നുണ്ട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് പത്താം ക്ലാസ് ആണ് കാരണം സ്പോർട്ട്സും പിന്നെ എല്ലാവരുമായിട്ട് ഒരുപാട് നല്ല എൻജോയ്മെന്റ് ഉള്ള കുറേ മെമ്മറീസ് ഉണ്ട് കാരണം ലാസ്റ്റ് എന്താണ് സെന്റ് ഓഫ് പിന്നെ ഓട്ടോഗ്രാഫ് അതോരോ ഓർമ്മകൾ അതൊക്കെ എറ്റവും ന ഏറ്റവും നല്ല മെമ്മറി ആയിട്ടുള്ള കാല കാലഘട്ടം തന്നെയാണ് കാരണം എല്ലാവരും തന്നെ എല്ലാവർക്കും ഓരോ ഓർമ്മകൾ കാണുമല്ലോ ഇപ്പം നമ്മുടെയൊക്കെ ഒരു ലൈഫ് എന്റെയൊരിതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പത്താം ക്ലാസ് തന്നെയാണ് എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഇപ്പോഴും നല്ലപോലെ കമ്പനി ആണ് നല്ല ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ട് പോവുന്നുണ്ട് പലരും പല വഴിക്കാണ് എന്നാലും ഞങ്ങളെല്ലാവരും ഇടക്കിടക്ക് കാണാറുണ്ട് കാരണം ഈ ഒരു ഏരിയയിലത് ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഉള്ള ഒരുപാട് പേർ ഒരുമിച്ച് പഠിച്ചൊരു ഗ്രാമീണ സ്കൂൾ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും തന്നെ ഇവിടെ ഉളളവരാണ് അപ്പം മാക്സിമം ഞങ്ങൾ കാണാറുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് പോവുന്നുണ്ട് അപ്പം ഒരു മീറ്റപ്പ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കൂടാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എല്ലാവരും തന്നെ പല ഇടത്താണ് എന്നാലും തന്നെ നമ്മളൊരുമാതിരി നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് പോവുന്നുണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നൊരു കാലഘട്ടം തന്നെയാണ് പത്ത്